ഞാൻ ചില ദിനചര്യകളൊക്കെ പിന്തുടരുന്നുണ്ട് പിന്നെ എൻ്റെ എഴുത്തിൽ എങ്ങനെയാണ് ഞാൻ അച്ചടക്കം പാലിക്കുന്നത് ചോദിച്ചാൽ ഞാനൊരു പ്ര ഞാനൊരു ഇന്ന സമയത്ത് ഓരോ ദിവസം കൂടും തോറും ഞാനൊരു സമയത്ത് എഴ് എഴുതാനായിട്ട് ഞാൻ ഇരിക്കാറുണ്ട് എനിക്കൊരു ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസം വ്യത്യസ്ഥ രീതിയിലല്ല എല്ലാ ദിവസവും ഒരുപോലെ കൊണ്ട് പോകാൻ കൊണ്ടു പോകാൻ ഇഷ്ടപ്പെടുന്നൊരാളാണ് ഞാൻ ഞാൻ ഇന്ന് ഇപ്പോൾ രാവിലെ മുതൽ ഉ ഉച്ചവരെ എൻ്റേതായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ഉച്ചകഴിഞ്ഞ് ഞാൻ എഴുത്തിനായി മാറ്റി വെയ്ക്കുകയാണ് ചെയ്യാറ് അത് പൊതുവേ ഞാൻ എപ്പോഴും അങ്ങനെ അങ്ങനെത്തന്നെയാണ് ഇപ്പോൾ ഞാൻ ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇതേ ഒരു രീതീ തന്നെയാണ് പിന്തുടർന്ന് കൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എഴ് എഴുത്തിനായിട്ടൊരു സമയം തന്നെ കിട്ട് നല്ല നല്ലൊരു പൂർണ്ണ സമയം തന്നെ ഏക ഇപ്പോൾ എഴുത്ത് എന്ന പറയുമ്പോൾ ഏകാക്രത വേണമല്ലോ അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ സമയം മാറ്റി വെയ്ക്കാറുണ്ട് എഴുത്തിന് വേണ്ടിയിട്ട്